ഹലോ ആ ഏബീസ് ഹോട്ടൽ അല്ലേ ഓക്കെ ആ ഞാൻ കൊടുപ്പനയിൽ നിന്നാണേ വിളിക്കുന്നതേ നമുക്കിവിടെ ഹോം ഡെലിവറി ഉണ്ടല്ലോ അല്ലേ ആ ഓക്കെ ആ നമുക്ക് ഇപ്പോൾ അവിടുന്ന് പൊറോട്ടയും ചില്ലി ചിക്കനും വേണമായിരുന്നു ആ പത്ത് പൊറോട്ടയും ഒരു ഫുൾ ഒരു ഫുൾ ചില്ലി ചിക്കനും ഓക്കെ എത്ര രൂപയാവും ആ ആ ഓക്കെ ആ നമുക്ക് ഒരു പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്ക് ഇവിടെ എത്തുന്ന രീതിയിൽ വേണമേ ആ ആ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ എത്തണേ ആ ഓക്കെ ആ എത്ര രൂപയാവുമായിരിക്കും ആ ശരി അത് നമ്മൾ ഡെലിവറി ബോയിലേ കൊടുക്കുവാണോ ഗൂഗിൾ പേ ചെയ്യുവാണോ ഓക്കെ ആ എങ്കിൾ ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം ഓക്കെ ഈ നമ്പറിൾ അല്ലേ ഗൂഗിൾ പേ ആ ഓക്കെ ഓക്കെ ഞാൻ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തേക്കാം കറക്റ്റ് പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്ക് തന്നെ കൊണ്ടുവരണേ ആ ശരി ഓക്കെ താങ്ക് യു